ഹലോ അതെ ആ ആ ഞങ്ങൾ ഇട്ടിരുന്നു അതെന്താന്ന് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഭക്ഷണം കൊള്ളിലെങ്കിലാണ് നമ്മള് സാധാരണ ചീത്തയായിട്ടുള്ള റിവ്യൂ ഇടുക ഇല്ല സാർ നമുക്കത് സമ്മതിച്ചു തരാനായിട്ട് പറ്റില്ല കാരണം ഇല്ല ഇല്ല അതങ്ങനല്ല സാർ നമുക്ക് ആള് കൊണ്ട് വന്നതോ ഡെലിവർ ചെയ്തതിൻ്റെ ഒന്നുമല്ല കുഴപ്പം കാര എന്താ പറയുക ശരിക്കുമുള്ള സമയത്തിന് തന്നെയാണ് പറഞ്ഞ സമയത്തിന് തന്നെയാണ് പറഞ്ഞ സമയത്തിനുള്ളില് തന്നെ കൊണ്ട് വന്നിട്ടുണ്ട് ഇല്ല അതൊന്നുവല്ല പക്ഷേ ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഭക്ഷണം ആയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മള് അങ്ങനത്തെ ഒരു റിവ്യൂ ഇട്ടത് അതില് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്കാ ഭക്ഷണം നിങ്ങൾക്ക് ആറിയാമല്ലോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നമ്മള് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് തന്നെ നമുക്കത്ര അത്യാവശ്യായി നമുക്ക് ഭക്ഷണം വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമായത് കൊണ്ടാണ് ഞങ്ങള് നിങ്ങളുടേതിൽ നിന്ന് ഞങ്ങള് മേടിച്ചത് പക്ഷേ അത് തുറന്നപ്പോൾ ഉണ്ടായൊരു സ്മെല്ലെന്ന് പറയുന്നത് സഹിക്കാൻ പോലും പറ്റാത്തൊരു മണായിരുന്നു അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു മണായിരുന്നു ശരിക്കും എന്താ പറയുക ഇത് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ദിവസം പഴകി കഴിഞ്ഞാൽ ഒരു മണമൊക്കെ ഉണ്ടാവില്ലെ അതുപോലത്തെ ഒരു മണമായിരുന്നു വന്നത് നമുക്കത് നിങ്ങളോട് പറയണമല്ലോ അപ്പം നിങ്ങളെ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും എടുക്കുന്നുണ്ടായില്ല നേരിട്ട് ഹോട്ടലിലോട്ട് തന്നെ വിളിച്ചു പിന്നെ അതുകഴിഞ്ഞിട്ടാണ് നമ്മളപ്പം റിവ്യൂ ഇടാമെന്ന് ആലോചിച്ചത് ആ റിവ്യൂ ഒക്കെ ഞങ്ങള് ഡിലീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങളിത് ഒരിക്കലും ആവർത്തിക്കരുത് നമുക്കെന്തായാലും പേയ്മെന്റ് ബാക്ക് അത് മാത്രമല്ല പൈസ ഞങ്ങൾക്കെന്തായാലും കിട്ടണം നമ്മൾ ഇതേ ഈ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല ഭക്ഷണം ഞങ്ങള് വേറെ മേടിച്ചു കഴിഞ്ഞു കാരണം നമുക്ക് അത്യാവശ്യമുണ്ടായിരുന്നല്ലോ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങള് ഭക്ഷണം വേറെ മേടിച്ച് കഴിച്ചു പക്ഷേ നമുക്കെന്തായാലും പേയ്മെന്റ് തിരിച്ച് ചെയ്ത് തരണം റിവ്യൂ ഞങ്ങള് പിൻവലിക്കാം പക്ഷേ നിങ്ങള് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്തത്തിൽ പെരുമാറണം കാരണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും അത് തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടേ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ അപ്പം അതില് കാര്യത്തില് കുറച്ചും കൂടെ നിങ്ങള് ഉത്തരവാദിത്തം കാണിക്കണം ശരി